ഒരിക്കൽ ഞാനും എൻ്റെ അമ്മയും കൂടി ഊബർ വിളിച്ച് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ കല്യാണത്തിന് പോയി നമ്മൾ കൃത്യസമയത്ത് തന്നെ വണ്ടി എത്തി നമ്മളെ പിക്ക് ചെയ്തു ഒരു നാല്പത് മിനിറ്റിൻ്റെ യാത്ര ആയിരുന്നു ഒരു നാല്പത് നാല്പത്തഞ്ച് മിനിറ്റിൽ നമ്മൾ നമ്മുടെ സ്ഥലത്തെത്തി പറഞ്ഞ സഥലത്തെത്തി അപ്പോഴാണ് മനസ്സിലാകുന്നത് എൻ്റെ ഫോൺ വർക്ക് ചെയ്യുന്നില്ല ഫോൺ വർക്ക് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ ഫോൺ പേ ജി പേ പേടിഎം എല്ലാം നമ്മുടെ ഫോണിൽ ആണല്ലോ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് അത് ഒന്നും എനിക്ക് പ്രവർത്തിപ്പിക്കാനേ കഴിയുന്നില്ല ഫോൺ പല കുറി ഓൺ ആകിയിട്ടും അത് ഓൺ ആകുന്നില്ല ഇനിയിപ്പോൾ എന്ത് ചെയ്യും ഈ ഊബറിന് പണം അടക്കാൻ എന്ത് ചെയ്യും എന്ന് അറിയാണ്ട് ഞാൻ വളരെ വിഷമിച്ചു കൈയിൽ ആണെങ്കിൽ തപ്പി പെറുക്കി നോക്കിയപ്പോൾ അതിനുള്ള പൈസ കൊടുക്കുവാനുള്ള പൈസ ഉണ്ട് എന്നിട്ട് ഞങ്ങൾ ഞാനും എൻ്റെ അമ്മയും അവരോട് അഭ്യർത്ഥിച്ചു എങ്ങനെങ്കിലും ഈ യാത്രക്ക് ചിലവായ തുക നിങ്ങളുടെ കൈയിൽ തന്നാൽ മതി എങ്ങനെയെങ്കിലും നിങ്ങൾ അത് സമ്മതിക്കണം എന്ന് ഒടുവിൽ അവർ അത് സമ്മതിച്ചു ഞങ്ങൾ അത് ഒന്ന് പൈസ യാത്രക്ക് ചിലവായ തുക ഇരുന്നൂറ്റി അറുപത് രൂപ അവരുടെ കൈയിൽ കൊടുത്തു